ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ ഏറ്റവും സവിശേഷമായൊരാഘോഷമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ എന്നു പറയുന്നൊരു ജി ഒരു കേരളത്തിലൊരു ജില്ലയാണ് തൃശ്ശൂർ അവടുത്തെ പൂരം ഏറ്റവും ഫേമസ് ആഘോഷമാണ് തൃശ്ശൂർ പൂരം അവിടെ നമ്മൾ ഇങ്ങനെ ഒത്തിരി കാലം വർഷങ്ങളായി തലമുറകൾ തലമുറ കൈമാറി ആഘോഷിക്കുന്നു അവിടെ പത്തു പതിനഞ്ചാനകളെ നിരത്തി നിർത്തി കുടമാറ്റം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ഇത് ഇഷ്ടം പോലെ അവിടെ അവിടെ തന്നെ ആഘോഷിക്കുന്നുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയെന്നു പറയുമ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട എല്ലാവരും അറിയപ്പെടുന്ന തൃശ്ശൂരാണ് ആ തൃശ്ശൂർ പൂരം എന്നു പറഞ്ഞിങ്ങനെ എല്ലാവരും ആകർഷിക്കുന്നൊരു ആഘോഷമായിരുന്നു തൃശ്ശൂർ പൂരം ആ പൂരം പൂരത്തെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ആ ആഘോഷങ്ങളിൽ വെച്ചേറ്റവും മികച്ച ആഘോഷം ആ നല്ല കേ കേരളീയ രമണീയമായ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആനകളെയൊക്കെ നിരത്തി നിർത്തി പിന്നെ കുടമാറ്റവും ആനകളെ പല പല തിടമ്പുകളേറ്റി ഇനി ഇന്നു കുടമാറ്റവും അവിടെ ചെണ്ടമേളവും തെയ്യവും കഥകളിയും എല്ലാം അരങ്ങാടി തരുവാതിരക്കൾ വരെ കളിച്ച് ആഘോഷിക്കുന്നൊരു ആഘോഷാ ആഘോഷമാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ പൂരം എന്നു പറഞ്ഞാൽ ശ്രീ മഹാദേവക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ വാതിൽക്കൽ വടക്കും നാഥനെന്നൊക്കെ പറയും അതിൻ്റെ ക്ഷേത്രത്തിലെ വാതിൽക്കൽ ഇങ്ങന ആനകളെയൊക്കെ നിരത്തി നിർത്തി ഒത്തിരി ആഘോഷങ്ങളിങ്ങനെ കൈമാറി കൈമാറി വന്നു കിട്ടുന്നതാണ് തൃശ്ശൂർ പൂരം ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇന്ത്യയിലെന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഏറ്റവും ഫേമസാണ് തൃശ്ശൂർ പൂരം അപ്പം ഈ തൃശ്ശൂർ പൂരത്തെ പറ്റി ഏതൊരു ഒരു വ്യക്തിയോടു ചോദിച്ചാലും വാ തോരാതെ സംസാരിക്കും തൃശ്ശൂർ പൂരത്തെപ്പറ്റി